ആ എനിക്ക് ഞാന് ഒരു അഡ്മിഷന്റെ കാര്യം വേണ്ടി ചോദിക്കാന് വിളിച്ചെതാണേ ഞാന് ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ അപ്പം എറണാകുളത്ത് നിന്ന് ട്രാന്സ്ഫര് ആയിട്ട് കോഴിക്കോട് വന്നേക്കുന്നത് അപ്പം എനിക്ക് എന്റെ കുട്ടിനെ അഡ്മിഷന് ചേര്ക്കാന് വേണ്ടി ഞാന് വിളിച്ചതാണ് എയിറ്റ് മ് എൺപത് അല്ലേ ആഹം ബാക്കി യൂണിഫോമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂണിഫോമും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മ് പറഞ്ഞേനെ അല്ലേ സ്കൂള് ബസ് എന്തായാലും മസ്റ്റ് ആണോ ആഹഹാ ആ ആ ടെക്സ്റ്റ് മാത്രം അല്ലേ ആ വേറെ എന്ന് പറഞ്ഞാൽ സ്കൂള് ബസിൽ അങ്ങനെ മാസം മാസം അല്ലേ ഫീസ് കൊടുക്കേണ്ടത് ഇത് ഇതിന്റെ കൂടെ നേരത്തെ അടച്ചിടുകയല്ലല്ലോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ മ് മ് മ് ആ അങ്ങനെയാണെങ്കില് ഇന്ന് എന്തായാലും കോണ്ടാക്ട് ഈ നമ്പരില് കോണ്ടാക്ട് ചെയ്താൽ കിട്ടില്ലേ ആ ഓക്കെ ഓക്കെ ആ എയിറ്റ് എയിറ്റ് ആഹാ ആ ആ ആ അത് എന്തായാലും ഇന്ന് ചെയ്യാം കാരണം ഞാന് പെട്ടെന്ന് ട്രാന്സ്ഫര് ആവുകയാരുന്നു ആ ആ ആ ആ ഇത് സാറിന്റെ പേഴ്സണല് നമ്പര് ആണോ ഓക്കെ ഞാനത് സേവ് ചെയ്യുന്നുണ്ട് ആ ആ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് ഒന്ന് നമ്മൾ ഇതായിട്ട് ഒന്ന് കാര്യായിട്ട് ഓക്കെ ഓക്കെ